ഹലോ ട്വൻറ്റി ഫോക്കസല്ലേ ഞാൻ വിളിച്ചത് എന്നാന്നു വെച്ചാൽ ഞാൻ ഒരു വണ്ടി നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ സെക്കൻഡ് കാറായിട്ട് യൂസ് ചെയ്യാനായിരുന്നു നിങ്ങളുടെ അവിടെ ഏതൊക്കെ ബ്രാൻഡ്സാണ് ഉള്ളത് അ നം ആ മതി നമ്മുടെ വൈഫിന്നായിരുന്നു അവൾക്ക് ഓടിച്ച് പഠിക്കാനായിരുന്നു ഐ ട്വൻറ്റി ആ

ഒക്ടറൈസ്ഡാണല്ലേ ആഹാ ആ ആ ജെന്ന അവർ ജെന്നയാണോ ആ ആ എനിക്ക് അറിയാം ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ് ഓ അങ്ങനൊന്നും ഇല്ലടോ

അറിയാം അറിയാം ആ പക്ഷേ ഞാൻ അങ്ങനെല്ലല്ലോ കേട്ടത്

വണ്ടി ഡെയിലി ഇടിയും തട്ടുമൊക്കെയാന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത് പുള്ളിക്കാരിയുടെ

വണ്ടി മോഡലേതാന്നാണ് പറഞ്ഞത് ആഹാ അപ്പോൾ വണ്ടിയുടെ സ്പെക്കൊന്ന് പറയുമോ ഏതാന്ന് എത്ര സീ സിയാണ് ആ വരുന്നത് അത് കുഴപ്പമില്ല

വൺ പോയിൻറ്റ് ടു ലിറ്ററല്ലേ പെട്രോളായിരുന്നോ ഡീസലായിരുന്നോ

എനിക്ക് അറിയാം അവളുടെ ഹസ്ബൻഡാണ് ഇലക്ട്രോണിക്കെക്കെ കയറ്റി വിട്ടിട്ടുണ്ടല്ലോ

അതക്കെ റീമൂവ് ചെയ്തായിരുന്നോ ആഹാ ആ നമ്മൾ ആ റേയ്ഞ്ച് നോക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഇത് മാത്രമേ നിങ്ങടെയിൽ ഇരിക്കുന്നത് ഐ ട്വൻറ്റി ഡീസെൽ ഡീസെല് വരുന്നുണ്ടോ ആ ഡോക്ടർനെ നമുക്ക് അറിയാമല്ലോ അത് അങ്ങനല്ല നമുക്ക് അറിയാവുന്ന ഒരാളുടെ കയ്യിന്ന് വേറേ ഏത് വണ്ടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഐ ട്വൻറ്റിത്തന്നെ സെയിം സ്പെക്റ്റ് അല്ലേ എനിക്ക് അല്ല വൈഫിനായിരുന്നു ഞാൻ ഡോക്ടറാണ് അതെ അതെ അതെ അതെ ഓ ഞാൻ ഈയിടെ ഒരു പോർഷെ പനമാരയെടുത്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വൈഫിനാന്ന് അത് എന്തോരം കിലോമീറ്ററായതാണ്

ആഹാ ഏത് നമ്മുടെ ജെന്നേടയോ ആഹാ ഓ ഐ സി ആ പിന്നെ നമ്മൾ ഈ വണ്ടിയെടുത്താൽ പിന്നെ ഡിസ്കംഫോട്ടോന്നും ആവില്ലല്ലോ അല്ലേ അല്ല നമുക്ക് അത് എടുത്ത് കഴിഞ്ഞ് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും വരത്തില്ലാല്ലോ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെക്കിങ് വാറൻറ്റി വരുന്നുണ്ടായിരുന്നോ ചെക്കിങ് വാറൻറ്റി നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ആ ഓ ഓക്കേ ഓക്കേ ഓ അത് കൊള്ളാമല്ലോ ആ ഓക്കേ ഓക്കേ വിളിച്ചാൽ മതി ആ ഓക്കേ ഓക്കേ ശരിയെന്നാൽ ഓക്കേ